ഇത് പുൽപ്പറ്റം ആശാൻ്റെ ചായക്കടയല്ലേ എനിക്ക് വൈകുന്നേരം കുറച്ച് ചായ വേണം കടീം വേണോ എന്തൊക്കെയുണ്ട് പിന്നെന്താണ് കടിയിൽ കടി എന്താ ഇല്ലേ അതിനൊക്കെ എത്രയാണ് അതിനൊക്കെത്രയാണ് വരുക മസാല ചായക്കെത്രെയാണ് അത് അൻപത് മയ്സ് മസാലച്ചായ

അൻപത് ഹോർളിക്സും പിന്നെ അത് ബുക്കാണോ

കടലേറ്റ് മൊത്താവും തീർക്കാൻ മൊത്തവും തീർക്കാൻ

ആ മൊത്തവും തീർക്കലാണൊ ആ ആ

ഓഫറുണ്ടോ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ആ അ